ഞങ്ങള് കൂടുതല് ഈ വീഡിയോ ആപ്പ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പം പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഞങ്ങള് കാണാൻ ഒക്കെ നേരിട്ട് കണ്ട് വിളിക്കാനുള്ള ഇതിപ്പോൾ ഉണ്ട് ആദ്യകാലങ്ങളിൽ അതൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെ വീഡിയോ ആപ്പ് വഴിയും വാട്ട്സ്ആപ്പ് വഴിയും നമുക്ക് വേറെ സ്ഥലത്തുള്ള ആൾകാരെയൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും ഒക്കെ ഇങ്ങനെ രാത്രി വീഡിയോ കോൾ ചെയ്യാറുണ്ട് അതില് പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് അവര് രണ്ട് ബ്രദേഴ്സും വിദേശത്താണ് ഉള്ളത് അപ്പം അവര് അവരുടെ ഒഴിവ് സമയങ്ങളില് അവര് ഞങ്ങള് വിളിക്കാറുണ്ട് ഇങ്ങനെ വീഡിയോ കോളിലൂടെയാണ് വിളിക്കാറ് ഞങ്ങളെ കാണാനും ഞങ്ങളോട് സംസാരിക്കാൻ ഒക്കെ വേണ്ടീട്ട് വീഡിയോ കോളാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് കോൾ ചെയ്യുന്നതിനെ കാട്ടിൽ കൂടുതല് അവര് വൈകിട്ട് നം നമ്മള് വീഡിയോ കോളിലൂടെയാണ് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ